എൻ്റെ ലൈഫിൽ എനിക്കേറ്റവും അഭിമാനകരമായൊരു കാര്യം ഒന്ന് പറയുവാണ് ഞാൻ ഐ ഇ എൽ ടി എസ് എഴുതി പാസായതായിരുന്നു ഒത്തിരി ഞാൻ ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ എക്സാം എഴുതി ഞാന് വിജയം നേടിയത് പുറത്തുപോവാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ച് കുറെ എക്സാമുകളെഴുതി അതിലൊക്കെ ഫെയിലായി പിന്നെയും ഞാന് പ പഠിച്ച് പിന്നെ ഞാൻ എക്സാമെഴുതി പാസായതിലാണ് എനിക്കേറ്റവും അഭിമാനം തോന്നുന്ന ഒരു കാര്യം